മലയാള ഭാഷയാണ് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങള് വളരെ സ്മൂത്തായ രീതിയില് മറ്റുള്ളവരിലേക്ക് എങ്ങനെ സംവദിക്കാമെന്നുള്ളത് നമുക്കേറ്റവും അനുയോജ്യമായ ഭാഷ നമ്മടെ മലയാള ഭാഷ തന്നെ പക്ഷെ കാലക്രമേണ നമ്മള് ഇംഗ്ലീഷുകാരുടെയും ഡച്ചുകാരുടെയുമൊക്കെ ഉള്ള ആ ഒരു സംവിധാനങ്ങള് നമ്മുടെ ഭാഷയിലേക്ക് വന്നപ്പോള് പലതരത്തിലുള്ള മാറ്റങ്ങള് നമ്മുടെ ശൈലികളില് നമ്മുടെ എഴുത്തു ഭാഷയിലൊക്കെ വളരെ അധികം ശോചനീയാവസ്ഥയാണു വരുത്തിയിരിക്കുന്നത് കാരണം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് എഴുത്തില് എഴുത്തുലിപികളായിരുന്നു അപ്പോള് നമ്മള് എഴുതുമ്പോള്ത്തന്നെ ആ അക്ഷരങ്ങളില് അതിന്റെ സ്പുടത ഉച്ചാരണശക്തി ഇതെല്ലാം നമ്മള് ഉച്ചാരണശുദ്ധി ഇതെല്ലാം നമ്മള് വരുത്തിയ നമ്മളൊരു നമ്മളുടെ മലയാള ഭാഷയെ നമ്മള് ജീവിതത്തിന്റെയൊരു ഭാഗമായിട്ട് അതായത് ഏറ്റവും നമ്മള്ക്ക് നമ്മുടെ ആശയങ്ങള് മറ്റുള്ളവരിലേക്ക് സംവദിക്കാനുള്ള ഒരു നല്ല തനതായ മാർഗമായ നമ്മുടെ മലയാള ഭാഷ അതിലേക്ക് ഇംഗ്ലീഷ് വന്ന് കടന്നുകയറിയപ്പോൾ നമ്മള്ക്ക് മലയാളം പോലും മുഴുവനായിട്ട് പറയാമ്പറ്റത്തില്ല നമ്മളെന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ അറിയാതെ ഇംഗ്ലീഷും കയറിയങ്ങ് പോവുകയാണ് അതായത് മലയാളത്തിലെഴുതുന്നതു പോലും ഇംഗ്ലീഷിന്റെ എടുത്തിട്ട് നമ്മള് മലയാളത്തില് തർജിമ ചെയ്യുക അതൊരു വളരെ ശോചനീയാവസ്ഥയിലേക്കാണ് പോകുന്നത് മലയാളം തനിമയോടുകൂടി സംസാരിക്കുകയും മലയാളത്തനിമയോടികൂടി എഴുതുകയും അതൊക്കെ ചെയ്തുകഴിഞ്ഞാൽ അതിനൊരു മാധുര്യം കൂടുതലുള്ള കൂട്ടത്തിലാണ് അപ്പോള് മലയാള ഭാഷയെ നമ്മള് ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നത് കാരണം മലയാളം അത്രയ്ക്കും മാധുര്യം നിറഞ്ഞതാണ് നന്മയുള്ളതാണ് മലയാളം ഇപ്പോള് മലയാള ഭാഷ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതിലേക്ക് മറ്റ് ഭാഷകളെ കടത്തി വിടാതെ തനത് ശൈലിയില് മലയാളത്തെ ഉപയോഗിക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട് കാരണം ഇന്ന് കണ്ടുവരുന്ന സിനിമകളിൽ പോലുമൊക്കെ കണ്ടുവരുന്ന പല പാട്ടുകള് മലയാള ഭാഷയെ തന്നെ ഇടിച്ചമർത്തി വേണ്ടുന്ന ഒരു ഭാഷയാണ് കാരണം അതിനൊരു ശൈലി ഇല്ല പിന്നെ അതിനകത്ത് കയറി കൂടുന്ന പലതരത്തിലുള്ള വാഖ്യാനങ്ങളുമൊക്കെ നമ്മുടെ ഭാഷയുടെ തനതായ ഒരു രീതിയെ ഇവിടെ മാറ്റു കുറച്ച് കാണിക്കുകയാണ് അതുകൊണ്ട് മലയാള ഭാഷ ഏറ്റവും തനിമയോട് കൂടിത്തന്നെ ഉപയോഗിക്കണം എന്നൊരു അപേക്ഷ പറയുന്നു